ഞാൻ മോൾക്കൊരു ചുരിദാറ് വാങ്ങാൻ പോയി ആ ചുരിദാറിന് നല്ലവണ്ണം വിലയും കൊടുത്തു ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും ഇല്ല കക്ഷത്തിന്റെ അവിടെയൊക്കെ ഇങ്ങനെ പിഞ്ഞിപ്പിഞ്ഞിപ്പോരുക മോൾക്ക് കളറും പറ്റിയില്ല അധികം വിലയും എല്ലാവരും ചോദിച്ചു എന്തിനാ ഇത്ര വിലൻ്റെ ഒക്കെ കൊടുത്ത് വാങ്ങിയത് ഇത്രയൊക്കെ വില എന്തിനാ അപ്പം ഇവിടെ ഇതിൽക്കൂടെ പോകുന്നുണ്ട് ഓരോരുത്തർ കൊണ്ട് നടക്കുന്നുണ്ട് മറാഠിയകൾ ഇത് ഇവരെല്ലാരും ചുരിദാർ അപ്പം അയ്റ്റങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുകയാണ് ഇത് ഇത്രയും വില കൊടുക്കേണ്ടല്ലോ അപ്പം അതൊട്ട് അരിഞ്ഞതും ഇല്ല ഇല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടുകൊടുക്കാനും പറ്റിയില്ല എന്നിട്ട് നനച്ച് നോക്കുമ്പോൾ ഒക്കെ കളറ് പോകുകയും ചെയ്ത് അങ്ങനെയൊരു ചുരിദാറ് വാങ്ങി എന്ത് വിലയണ് കൊടുത്തത് എന്നിട്ട് പിന്നെ അതിന് ഷെമ്മീസ്സ് വാങ്ങി എല്ലാതും വാങ്ങി എന്നിട്ടും എല്ലാതും കളറും പോയി അങ്ങനെത്തെയൊരു ചുരിദാറ്